ഹലോ അതെ അതെ അതെ അതെ അതെ എന്തായിരുന്നു ആ ഉണ്ട് ഉണ്ട് ഉണ്ടല്ലോ എന്തൊക്കെയാണ് വേണ്ടിയെ എന്തോക്ക്യാ ആ ആ ആ ആ ആ ആ ആ ആ ഓ ഓ ഓ ആ ആ അത് അത് എത്രണ്ണം എത്രണ്ണം വേണ്ടിവരും ബൾക്കായിട്ട് വേണ്ടിയതാണോ ഓ അത് ശരി ശരി അങ്ങനുണ്ടോ ഒന്ന് നോക്കണ്ടി വരുമേ ആ അങ്ങനെ അങ്ങനുണ്ടേ ഒന്ന് നോക്കണ്ടി വരും ഏതായാലും വേ വേണ്ടിയ ലിസ്റ്റൊന്ന് തന്നേക്ക് അത് ഞാൻ പയ്യനോട് പറഞ്ഞിട്ടുണ്ട് നോക്കട്ട് അത് ഞാൻ നോക്കാം നോക്കും നോക്കും ആ അത് ഒന്ന് ലിസ്റ്റ് തന്നേക്ക് എന്തോക്കെ ലിസ്റ്റ് തന്നേക്ക് എന്തൊക്കെയാണ് വേണ്ടിയേന്നുള്ള ലിസ്റ്റ് താ ആ ആ ബുക്ക് ആ ആ ആ വരയിട്ടത് എത്ര വരയിട്ടത് എത്ര വരയിട്ടത് എത്ര വരയിടാത്തത് പത്ത് എണ്ണം ആ ഈ ബ്രൗൺ പേപ്പറ് ബ്രൗൺ പേപ്പറ് ആ മൂന്ന് റോളായിട്ട് ആ ആ ആ ബ്രൗൺ പേപ്പർ ഇരിപ്പില്ല കേട്ടോ ബ്രൗൺ പറ്റും പറ്റും പറ്റും പറ്റും പറ്റും പറ്റും പറ്റും ആ പക്ഷെയിപ്പം ആ ബ്രൗൺ പേപ്പർ ഇരിപ്പില്ല ഒരണമേ ഇരിപ്പുള്ളു ഒരു റോളേ ഇരിപ്പുള്ളു ആ അതൊരൂ ഒരു രണ്ട് ദിവസം താമസം വരും അത് മാത്രം ബാക്കിയെല്ലാ സാധനവും ഉണ്ട് കാര്യം ഇത് ഞങ്ങൾ ഏതാ സ ഏത് ഏത് ടൈപ്പാ വേണ്ടിയെ സ സാധാരണയാണോ സൈൻറ്റിഫിക്കോ ആ ആ അത് ആ അതും അതും ഞാൻ രണ്ട് ദിവസം ഉള്ളി ഒപ്പിച്ച് തരാം അത് ഇവിടെ സ്റ്റോക്കില്ല രണ്ട് ദിവസത്തിനുള്ളിൽ ഒപ്പിച്ച് തരാം ബ്രൗൺ ആ ബ്രൗൺ പേപ്പറും ആ ട്രിഗാനോമെട്രി ഒക്കെയുള്ളയല്ലേ സൈനും കോസും അങ്ങനൊക്കെ കാണിക്കുന്ന ആ ആ ആ ആ അത് അതൂടെ അത് രണ്ടും കൂടി ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ ഒപ്പിച്ച് തരാം എന്നാന്നറിയോ ഇത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇപ്പം ഇത്രേം നേരവായില്ലേ രാവിലെ ആയിരുന്നെങ്കിൽ കുഴപ്പവില്ലായിരുന്നു ഇന്ന് ഇതിപ്പോൾ ഞങ്ങൾ ഇപ്പം ഇത് ചെന്നൈന്നാണ് വരുത്ത് ബാംഗ്ളൂരിന്നാണ് എടുക്കുന്നത് അവർ അവരത് ആ എക്സാമ് അത് അല്ലേ ഒരു കാര്യം ചെയ്യ് അല്ലേ ഒരു കാര്യം ചെയ്യ് ഞങ്ങടെയൊരു ഞങ്ങടെതന്നെ ഒരു കട ഇച്ചിരി മാറി ഒരു അപ്പുറത്ത് നാല് കിലോമീറ്റർ അപ്പറെ മാറി ഉണ്ട് ഏ ഞാൻ അവിടന്ന് അവിടുണ്ടോന്ന് ചോദിക്കട്ട് ഉണ്ടെങ്കിൽ ഞാനവിടുന്ന് എടുത്ത് തന്നോളാം ഈ വിലക്ക് തന്നെ ആ ഞാൻ ഈ വിലക്ക് തന്നെ ഞാൻ അത് എടുത്ത് തരാം കേട്ടോ അവിടെ ഞങ്ങളുടെ അവിടൊരു ഇവിടത്തെ പോലെ വലിയ കച്ചവടം ഉള്ള കടയല്ല അവിടെ ഇച്ചിരെ ഉള്ളേരിയേലാണ് അന്നേരം അന്നേരം അവിടെ ചിലപ്പോൾ സ്റ്റോക്ക് കാണും ആ ആ ശരി ശരി ശരി ആ അങ്ങനെന്തായാലും എല്ലാംകൂടി ഒന്നിച്ച് മതിയല്ലോ ഇന്ന് ഇന്ന് വൈകീട്ടത്തേക്ക് തന്നെ എല്ലാം കൂടി ഒന്നിച്ച് നോക്കട്ട് ഈ ഈ ബ്രൗൺ പേപ്പർ ഞാൻ അവിടുന്ന് തന്നെ അങ്ങ് അറേഞ്ചു ചെയ്ത തരാം ഓക്കെ ശരി ശരി ഓക്കെ